ശരീരഭാരം കൂട്ടാൻ ശ്രമിക്കുന്നവർക്ക് നമ്മുടെ ഗ്രാമത്തിലുള്ള നാട്ടുവൈദ്യങ്ങൾ ഇപ്പോൾ ശരീര ഇപ്പോൾ പിന്നെ താറാവ് മുട്ട ഏത്തപ്പഴം പാൽ അതൊക്കെ നമ്മൾ ഡെയ്ലി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരീര ഭാരം കൂട്ടാനായിട്ട് സാധിക്കും പിന്നെ മാംസങ്ങൾ മത്സ്യമാംസാദികൾ അങ്ങനെയുള്ളവ ഫുഡ് നല്ല നല്ല ഫുഡ് കഴിച്ചാൽ ശരീരഭാരം കൂട്ടാനായിട്ട് സാധിക്കും പിന്നേ അതേപോലെ ആയുർവേദ ഇതൊക്കെയാണെങ്കി ലേഹ്യങ്ങളുണ്ട് പച്ചമരുന്നുകളുടെ ലേഹ്യങ്ങള് പച്ചമരുന്നുകളുടെ പച്ചമരുന്നുകൾ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൽ അങ്ങനെയൊക്ക ഉള്ളതുണ്ട് അതൊക്കെ ഉപയോഗിച്ചു അതൊക്കെ കഴിക്കുന്നതു മൂലം ശരീരഭാരം കൂട്ടാനായിട്ട് സാധിക്കും